ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും മത്സ്യം പിടിക്കാൻ പോണ സമയത്ത് വലിയ മീൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ വലയിടുന്ന സമയങ്ങളിൽ ഒരു മീനൊക്കെയായിരിക്കും ചിലപ്പോൾ കിട്ടുക അത് ചിലപ്പോൾ ചെറുതാകാം അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക ആ മീനിനെ അതിനകത്തേക്ക് വിട്ടിട്ട് പുതുതായിട്ട് വീണ്ടും വലയിടുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ വലയിൽ എന്താ പറയുക ഇപ്പോൾ മീൻ കാര്യങ്ങളൊക്കെ ബ ബൾക്കായി കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ വല വീശാൻ അറിയുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ കൂട്ടാറുള്ളത് അപ്പോൾ ചെ ഒരു ഒരു ദിവസം നമ്മൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ അപ്പോൾ വലിയൊരു സ്രാവിനെയാണ് നമുക്ക് കിട്ടിയത് അപ്പം അതോരെണ്ണം ഒരെണ്ണം മാത്രമാണ് ആ വലയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം ഇതിനത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോയെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് പിടിച്ച് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇത് ഇപ്പം താ നമ്മൾ താ അതായത് താഴെ പോകുമോയെന്നൊക്കെ നമുക്ക് ഭയങ്കര പേടിയും ഭാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു ഒരു എന്താ പറയുക എങ്ങും ഇല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടി ഇതുവരെ അങ്ങനെ ഒരു മീനിനെ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല